ആ വാങ്ങാം ഒരു ചായ അടിക്കണേനപ്പ എന്ത് എന്ത് ചായയാ ഉള്ളത് എന്ത് ചായയാ ഉള്ളത്

ആ പാൽ ചായക്കെത്രയാണാവോ

ആ ഇരുപതുർപ്യ കുറച്ച് കൂടുതലാണ് എല്ലാ ചായ കടയിലും പത്തുർപ്യൊക്കെള്ളൂന്നാക്ക് തോന്നണത് തന്നാ ആ എന്ത് ആ എന്നാൽ പിന്നെ ഒരു പാൽ ചായ വേണം ഷുഗറ് ഇല്ലാതെ വിതൗട്ട് ഷുഗർ ആ ഷുഗറില്ലാതെ പിന്നെ കടിയെന്താണുള്ളത്

ആ കടിക്കെത്രയാണാവോ പതിനഞ്ചുർപ്യ

ആ കട്ലേറ്റേത് കട്ലേറ്റേതാണാവോ ചിക്കനോ മട്ടണോ ബീഫോ എന്താണാവുള്ളല്ലേ ആ ചിക്കനും പച്ചക്കറി വേറെ അത് ശരി ചിക്കനെത്രയാണ് ആ അത് കട്ലേറ്റിൽ ചിക്കനൊക്കെയുണ്ടാവോ അതോ ചിക്കനുണ്ടെന്നുള്ള പേരെയുണ്ടാവുള്ളോ ആവോ തന്നെ ആ

എരിവ് കൂടുതലുണ്ടാവോ എരിവ് വല്ലാതങ്ങട് കൂടുതൽ പറ്റൂല്ലേ

ആ ആ ആയിക്കോട്ടെ തന്നെ ആ എന്നാൽ ഒരു മധുരമില്ലാത്ത ചായയും ഒരു പഫ്സും ആയിക്കോട്ടെ